ഞാൻ ക്ലബിംഗ് ചെയ്തിട്ടുണ്ട് പലത് രീതിയിലുള്ളതിലും ട്രെയിനിംഗിൻ്റെ ഇതായിട്ടുള്ളതിലും അല്ലാതെ അല്ലാതെയും പോയി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പല കാര്യങ്ങളിലും ഇത് ചെയ്തു പരീക്ഷിച്ചിട്ടുണ്ട് പഷേ നമ്മൾ ഇപ്പം ഈ സാധാരണ ഈ ഗതിയിൽ മറ്റേ ട്രെയിനിംഗ് പർപ്പസിന് പോയി കഴിയുമ്പോൾ അതിൻ്റെ ആ അതിലുള്ള സേഫ്റ്റികളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷേ ഈ വിനോദത്തിന് പോയി കഴിയുമ്പോൾ അത്ര ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും അത് കിട്ടാറില്ല കിട്ടാറില്ല മീൻസ് നമ്മുടെ സേഫ്റ്റിയെ പറ്റി സേഫ്റ്റിയെ പറ്റിയാണ് കൂടുതലായിട്ട് ഇത് ചിന്തിക്കുന്നത് കാരണം ഇത് ഒത്തിരി ഉയരങ്ങളിൽ കയറിയിട്ട് അബദ്ധം ഒന്നും പറ്റാതെ താഴെ ഇറങ്ങി വരണമല്ലോ അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു സംഗതി

ഈ സാധാരണ നമ്മൾ ഈ ട്രെയിനിംഗ് ഇതുണ്ട് അല്ലാതെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ട് ട്രെയിനിംഗിൻ്റെ ഭാഗമായിട്ടു ചെയ്യുന്ന ക്ലബിംഗും അല്ലാതെ വിനോദ സഞ്ചാരികൾക്ക് രണ്ടും തമ്മിൽ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് നമ്മൾ ട്രെയിനിംഗിൻ്റെ ഒരുപാട് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സമയങ്ങൾ അനുസരിച്ച് സമയം അനുസരിച്ചു ഓരോന്ന് കാര്യങ്ങളും ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് ആ പക്ഷെ ഇത് ഈ വിനോദ സഞ്ചാരത്തിൻ്റേത് ആണെങ്കിൽ സമയങ്ങളൊന്നും ഇല്ല അത് അവരവരെ സമയമനുസരിച്ചു ചെയ്താൽ മതി അപ്പോൾ അത് തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വ്യത്യാസങ്ങളുണ്ട് നമുക്ക് ഏറ്റവും റിസ്ക് കൂടിയത് എന്ന് വച്ചു കഴിഞ്ഞാൽ ട്രെയിനിംഗിൻ്റെ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റേ വിനോദത്തിൻ്റെ വേണ്ടി ചെയ്യുന്നത് അത് ചെയ്യുന്നതാണെങ്കിൽ വലിയ റിസ്ക്കൊന്നും ഇല്ല കാരണം അത് നമ്മുടെ ആവശ്യം ഉണ്ടേ ചെയ്തോ അല്ലെങ്കിൽ ഇറങ്ങി പോരുക അത്രയേ ഉള്ളൂ നമ്മൾ കയറുക പറ്റുവാണേ കയറുക അല്ലേ ഇറങ്ങി പോരുക വേറെ കാര്യങ്ങളൊന്നും അതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല അതേ സമയം ട്രെയിനിംഗിൻ്റെ ആണെങ്കിൽ അവ അവർക്ക് ഒരു ടാർജറ്റ് ഉണ്ട് ഇത്ര കാര്യങ്ങൾ അവർ ചെയ്യണം ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടേ ഇറങ്ങാവൂ ഇത്ര കാര്യങ്ങൾ ഇത്ര സമയം കൊണ്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനാത്ത് അപ്പം നമ്മൾ അതുമിതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ട്രെയിനിംഗിൻ്റേതായിട്ടുള്ള അതിനകത്ത് സെക്യൂരിറ്റി ഇതുണ്ട് പിന്നെ സേഫ്റ്റിയുണ്ട് നമുക്ക് എന്തേലും പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനുള്ള പ്രതിവിധികൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ഈ ഇതുമായിട്ടു പിന്നെ

അല്ലാതെയുള്ള ക്ലബിംഗ് പറഞ്ഞു കയിഞ്ഞാൽ അത് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക എന്നിട്ട് ഇറങ്ങി പോവുക എല്ലാം പൂർത്തീകരിക്കാതെ ഇറങ്ങി പോകാം പക്ഷേ ട്രെയിനിംഗിൻ്റെ ഒത്തിരി കഠിനമാണ് കഠിനമാണെങ്കിലും നമുക്ക് അതൊരു ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതെന്താണെന്നു വച്ചാൽ അത് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ താൽപ്പര്യം ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യം ഇതിന് എല്ലാത്തിനും വേണ്ടുന്നത് സ്റ്റാമിനയാണ് സ്റ്റാമിന ഉണ്ടെങ്കിലേ എല്ലാം നമുക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നല്ല കാര്യങ്ങളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ഇതിൽ കാണാം ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്തായിട്ട് വേറെ സംസാരിക്കാമേ അപ്പോൾ പിന്നെ രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്ലൈംബിംഗ് പരീക്ഷിച്ചിട്ടുണ്ടോ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് ട്രെയിനിംഗായിട്ടും മറ്റേതായി